മലയാള ഭാഷയിൽ അക്ഷരമാലയ്ക്ക് തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട് ഒരു അറുപത് വർഷങ്ങൾക്കു മുമ്പ് ഉണ്ടായിരുന്ന അക്ഷരമാല മലയാള അക്ഷരമാലയല്ല പിന്നെ അതിനുശേഷം വന്നത് അക്ഷരങ്ങൾക്ക് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് മലയാളഭാഷ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക വ്യത്യാസമായിട്ട് വന്നതായിട്ട് നമുക്കൊന്നും അറിയില്ല കാരണം ഓരോ ജില്ലകളിൽ തന്നെ ഓരോ രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുന്നത് അവരുടെ ശൈലികളൊക്കെ വ്യത്യാസമുണ്ട് അപ്പം ഭാഷയിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് വ്യത്യാസം വന്നതായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല